അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകാൻ വലിയ ഇഷ്ടമൊന്നും ഇല്ലാ വീട്ടിലെന്തെങ്കിലും പനി ജലദോഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വല്ല ചുക്ക് കാപ്പി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കും പിന്നതുപോലെ വയറിളക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ചെറുനാരങ്ങ നീര് കട്ടൻ ചായയിൽ കഴിക്കും അതുപോലെ പച്ചമരുന്ന്

പറങ്കി മാവിൻ്റെ തൂമ്പ് മോരിലരച്ച് കുടിക്കുക അങ്ങനെയുള്ളതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വയറിളക്കം നിൽക്കും അങ്ങനെയൊക്കെ കുറേ നോക്കും അതുകൊണ്ടൊന്നും സുഖമായിട്ടില്ലെങ്കിൽ പിന്നെ ഡോക്ടറുടെ അടുത്തേക്ക് പോകും അങ്ങനെയാണ് ചെയ്യല്